സംസ്കൃത ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷയുടെ ഉത്ഭവം അത് കാലക്രമേണ ഓരോ ഇതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചേഞ്ചസായി വന്നുകൊണ്ടിരിക്കുന്നതാണ് സംസാര രീതിയും കാര്യങ്ങളും എല്ലാം മാറിക്കൊണ്ട് ഇരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളെ ഡിപ്പെൻ്റ് ചെയ്ത് ഭാഷയിൽ കുറെ ചെയ്ഞ്ചസും കാര്യങ്ങളും വന്നു വരുന്നുണ്ട് അതുപോലെ ഓരോ ജില്ലകൾ അനുസരിച്ചാണ് ഇപ്പം മലയാള ഭാഷയുടെ സ്ലാങ്ങും കാര്യങ്ങളും വരുന്നത് പിന്നെ എല്ലാം അച്ചടി ഭാഷകളിലും കാര്യങ്ങളിലുമൊക്കെ ആയി വന്നിട്ടുണ്ട് അതുപോലെതന്നെ മലയാള ഭാഷ എന്നു പറയുമ്പോൾ എന്താ അതായത് ഇന്ത്യയിലെ തന്നെ ഒരു വളരെ ഫേമസ് ആയൊരു ലാംഗ്വേജ് ആണ് മറ്റേ പാട് എന്താണ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ള ഒരു ഇതാണ് സംസാരിക്കാൻ ആണെങ്കിലും എല്ലാത്തിനും ഭയങ്കരമായ ബുദ്ധിമുട്ട് വരുന്ന ഒര് ഇത് ഒരു ലാംഗ്വേജ് ആണ് മലയാളം കാലക്രമേണ ഇപ്പം മലയാളത്തിൽ കുറെ ചെയ്ഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെതന്നെ ഓരോ ലൊക്കാലിറ്റിയും കാര്യങ്ങളും അനുസരിച്ച് ഡിപ്പെൻ്റബിൾ ആയിട്ടാണ് വരുന്നത് ഓരോരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിൻ്റെ സ്ലാങ്ങും കാര്യങ്ങളും ഒക്കെ ഡിപ്പെൻ്റബിൾ ആയിട്ട് മാറി മാറി വരുന്നുണ്ട് അതുപോലെ മലയാള ഭാഷയ്ക്കാണെന്ന് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നതുമാണ് പിന്നെ എല്ലാം പ്രാചീന കാലം തൊട്ടിട്ട് വരുന്ന ഓരോ ലാംഗ്വേജിൻ്റെ സംസ്കൃതത്തിൻ്റെ ഓരോ മാറ്റങ്ങളായിട്ട് വേരിയേഷനായിട്ടാണ് വന്നു തുടങ്ങിയതാണ് മലയാളം എന്നു പറയുന്ന ലാംഗ്വേജ്